ഹലോ ഹലോ ആ ഞാൻ എനിക്കൊരു തകഴിയുടെ ചെമ്മീൻ എന്ന് പറയുന്നൊരു പുസ്തകം വേണമായിരുന്നു ലൈബ്രറിയിൽ നിന്ന് അത് ഉണ്ടായിരുന്നോ ഇല്ല എനിക്കത് തന്നെ വേണമായിരുന്നേ എനിക്ക് ഒരു അസൈൻമെൻ്റ് ചെയ്യാനായിരുന്നു അത്യാവശ്യമായിട്ട് വേണമായിരുന്നു

ഓ ആ ഞാൻ എത്ര ദിവസം നമുക്ക് എത്ര ദിവസം നമ്മുടെ കയ്യിൽ വെച്ചേക്കാം ഏഴ് ദിവസമോ ഇതിപ്പം നമ്മുടെ കയ്യിൽ നിന്ന് പോവുവാണെങ്കിൽ അഥവാ കിട്ടി തിരിച്ച് കൊണ്ടുത്തരാൻ പറ്റിയില്ലെങ്കിൽ എത്രയാവും ഫൈൻ അതെയോ

ഓഹോ അപ്പോൾ അത് എനിക്ക് അത്യാവശ്യം ആയിരുന്നു അത് എത്രയും പെട്ടെന്ന് ഒന്ന് ഒപ്പിച്ച് തരാൻ പറ്റുമോ ആ ആ ആ എനിക്കത് വേണമായിരുന്നു അസൈൻമെൻ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണമായിരുന്നു കേട്ടോ അതൊന്ന് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ടൊക്കെ അപ്പോൾ അതുകൊണ്ടായിരുന്നു ആ പുസ്തകത്തിന് ആ പുസ്തകം തന്നെ കിട്ടുകയും വേണമായിരുന്നു ചെമ്മീനിൻ്റെ പുസ്തകം തന്നെ കിട്ടുകയും വേണമായിരുന്നു അതുകൊണ്ടാണ് ആ ആ ആഹാ വേണ്ട അ ആ ഇത് മതി ഇത് മതി ഇതാണ് എൻ്റെ എനിക്ക് അത്യാവശ്യമുള്ള പുസ്തകം ഇതായിരുന്നു എത്രയും പെട്ടെന്ന് എനിക്കൊന്ന് വേണമായിരുന്നു കാരണം അത്യാവശ്യം ആയതുകൊണ്ടായിരുന്നു

ഓ ഓ അത് എത്രയും പെട്ടെന്ന് ഒന്ന് കൊണ്ടുത്തരാൻ പറയാമോ ആ ആ ആ അങ്ങനെ എന്നാൽ ആ ഏ ആ അതെ വേ ആ വേറെ ഈ പുസ്തകം വേണ്ട വേറെ ഇത് മതി ഇതാണ് ഇതാണ് ഇപ്പം അത്യാവശ്യം ഉള്ളത് ഇതായിരുന്നു അതുകൊണ്ടാണ് ഇത് മാത്രം നോക്കിയത് ആ ഇവിടുന്ന് ഇതാവുമ്പം ത് വായിച്ചിട്ട് ഇത് കഴിഞ്ഞിട്ട് തിരിച്ച് ഇത് തന്നാൽ മതിയല്ലോ വെറുതെ വാങ്ങണ്ടല്ലോ അതുകൊണ്ടാണ് ഇവിടുന്ന് തന്നെ എടുക്കാം എന്ന് തീരുമാനിച്ചത് ആ ആ ആ

ആ എന്നാൽ ഓ ഓക്കെ ആ ആ ഓക്കെ എന്നാൽ ഞാൻ അത് കഴിഞ്ഞെന്നാൽ വരാമേ ഓക്കെ താങ്ക് യു ഓക്കെ ബൈ ബൈ